ഞാൻ താമസിക്കുന്നത് പട്ടണത്തിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം മാറിയുള്ളൊരു സ്ഥലത്താണ് അപ്പോൾ എൻ്റെ ഒരു പ്രദേശത്തെ ആരോഗ്യ സേവനങ്ങളെ പറ്റി പറഞ്ഞു വരുമ്പോൾ കുറച്ചു മാറിയിട്ടുതന്നെ ഒന്നുരണ്ട് ആശുപത്രികളുണ്ട് പ്രൈവറ്റ് ആശുപത്രികളുണ്ട് അതല്ലാതെ അടുത്തു തന്നെ നമ്മുടെ സർക്കാരിൻ്റെ പ്രാഥമിക ആരോഗ്യകേന്ദ്രവും കുടുംബ ആരോഗ്യകേന്ദ്രവും എൻ്റെ പ്രദേശത്ത് അപ്പോൾ ചെറിയ എന്തേലും അസ്വസ്ഥതകൾ ഒക്കെ വരുകയാണെങ്കിൽ ഇവിടെത്തന്നെ പോയാണ് പൊതുവേ ചികിൽസിക്കാൻ നോക്കാറ് പ്രാഥമിക ആരോഗ്യകേന്ദ്രത്തിൽ മരുന്നുകളെല്ലാം ഉണ്ട് അതുപോലെ അടുത്തുതന്നെയാണ് കുറച്ചുംകൂടി ഇതായിട്ടുള്ള കാര്യങ്ങൾക്കു വേണ്ടി പട്ടണത്തിൻ്റെ അടുത്തുവരെ പോവേണ്ടന്നില്ല അതിനു മുമ്പ് തന്നെ കുറച്ച് ആശുപത്രികളുണ്ട് അപ്പോള് ഈ രണ്ട് ആശുപത്രികളിൽ പോയാൽ തന്നെ എല്ലാ രീതികളും ഉണ്ട് പട്ടണത്തിൽ പോകാറുള്ളത് വളരെ അധികം ഇപ്പോള് എൻ്റെ പ്രദേശത്ത് വളരെയധികം മൂർച്ഛിച്ച എന്തേലുമൊരു ആരോഗ്യ സ്ഥിതി അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പട്ടണത്തിൽ പോകാറ് കാരണം അവിടത്തെ സൂപ്പർ സ്പെഷ്യലിറ്റി ഹോസ്പിറ്റലുകളിൽ ഉള്ള കിട്ടുന്ന ഒരു ചികിത്സ വിലനിലവാരം വ്യത്യാസം ഉണ്ട് ആ ഒരു നിലവാരം ഈ പ്രദേശത്ത് ഇല്ല പക്ഷെ പട്ടണത്തിൽ പോയിക്കഴിഞ്ഞാല് സൂപ്പർ സ്പെഷ്യലിറ്റി ആശുപത്രികൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു നിലവാരത്തിലുള്ള ചികിത്സ ലഭ്യമാണ് അപ്പോള് ഇതാണൊരു മുഖ്യമായ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഈ ഒരു രണ്ടു സ്ഥലത്തെയും ഒരു ആരോഗ്യ സൗകര്യങ്ങളെ കുറിച് ഇതല്ലാതെ നമ്മുടെ അടുത്തുള്ള ആരോഗ്യകേന്ദ്രങ്ങൾ തന്നെ എല്ലാ രീതിയിലുള്ള പ്രാഥമിക ആരോഗ്യ ശശ്രൂഷയ്ക്കുള്ള സൗകര്യങ്ങൾ ഉണ്ട് ഒരു വളരെ അധികം കഠിനം അല്ലെങ്കിൽ മൂർച്ഛിച്ച ഒരു അവസ്ഥയിൽ മാത്രമാണ് പട്ടണത്തിലുള്ള ആശുപത്രികളിൽ പോകേണ്ട ആവശ്യമുള്ളൂ പക്ഷെ പട്ടണത്തിലെ ആശുപത്രിയിൽ കുറച്ചുംകൂടി വലിയ സൗകര്യങ്ങളാണ് അതായത് കൂടുതൽ കിടക്കകളുണ്ട് കൂടുതൽ ഡോക്ടർമാരുണ്ട് പല രീതിയിലുള്ള സേവനങ്ങൾ അതായത് സൂപ്പർ സ്പെഷ്യലിറ്റി സേവനങ്ങൾ ലഭ്യമാണ് ആംബുലൻസ് സേവനങ്ങൾ വർദ്ധിച്ച രീതിയിൽ തന്നെയുണ്ട് അപ്പോള് ഇതൊക്കെ പട്ടണത്തിലെ ആശുപത്രികളിൽ ഉള്ളൊരു മുഖ്യമായൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് അതൊക്കെയാണ് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോള് അതായത് അടുത്തുള്ള പ്രാദേശിക പ്രദേശത്തുള്ള ബാക്കിയുള്ള ആശുപത്രികളും കേന്ദ്രങ്ങളും ആവശ്യമായ അത്യാവശ്യമായ എല്ലാ സേവനങ്ങളും ലഭ്യമാണ് പക്ഷെ പട്ടണത്തിലുള്ള ആശുപത്രികളിൽ കുറച്ചുകൂടി വമ്പിച്ച രീതിയിലൊള്ളൊരു നിലവാരത്തിലുള്ള ചികിത്സാരീതികളും ചികിത്സ സേവനങ്ങളും ലഭ്യമാണ് പിന്നീട് ഇതല്ലാതെ കുറച്ചുംകൂടി വലിയ രീതിയിൽ അല്ലെങ്കിൽ ആർഭാടമുള്ള രീതിയിലാണ് പട്ടണത്തിലുള്ള ആശുപത്രികൾ മൊത്തത്തിൽ പണിതിരിക്കുന്നത് അതായത് എയർകണ്ടിഷൻ ചെയ്ത മുറികളും അങ്ങനത്തെയൊരു വലിയ രീതിയിലുള്ളൊരു സൗകര്യങ്ങളാണ് നല്ലൊരു ആഡംബരമായ രീതിയിലാണ് പട്ടണത്തിലെ പൊതുവേ ഉള്ള മിക്ക ആശുപത്രികളും പണികഴിപ്പിച്ചിട്ടുള്ളത് അപ്പോള് ഇതാണ് ഈ രണ്ടു പ്രദേശത്തുമുള്ള ആശുപത്രികളുടെ ഒരു മുഖ്യമായി താരതമ്യം ചെയ്യുമ്പോള് തോന്നുന്ന ചില കാര്യങ്ങൾ